എനിക്ക് ഇന്ത്യൻ സിനിമകളെ സംഗീതം ഭയങ്കര ഇഷ്ടമാണ് അതു പഴയ സിനിമയാണ് കൂടുതലും ഇഷ്ടം മലയാള സിനിമയാണ് കൂടുതലും ഇഷ്ടം അതിനകത്ത് പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ കേട്ടാലും നമുക്കത് കേൾക്കാൻ തന്നെ തോന്നും പിന്നെ സീരിയലുകളും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് പിന്നെ അതു കൂടാതെ നടൻ നടൻ എന്നു മമ്മൂട്ടിയെയാണ് എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ അമരം സിനിമ ഹിറ്റ്ലർ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്കകത്തെ ഗാനങ്ങളെന്നു പറഞ്ഞാൽ പഴയ സിനിമ പാട്ടുകളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കും അതു നമ്മളെപ്പോൾ കേട്ടാലും അത് ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ പാട്ടുകളാണ് നമുക്ക് സിനിമയിലുള്ള സിനിമ സിനിമ ഗായകരിൽ യേശുദാസിനെയാണ് കൂടുതലിഷ്ടം യേശുദാസിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പം നമ്മൾക്ക് അതൊന്ന് വിജയ് യേശുദാസ് തന്നെയല്ലേ ചിത്ര ചിത്രാമ്മയും പാടുന്ന പാട്ടുകൾ കേട്ടു കഴിഞ്ഞെന്നാൽ നമുക്ക് എപ്പോഴും അതു കേട്ടിരിക്കാൻ തോന്നും അത്രയ്ക്കും നല്ല പാട്ടാണ് പിന്നെ അതു കൂടാതെ നമുക്ക് മലയാള സിനിമ എന്നു പറയുന്ന ഓർത്തിരിക്കാൻ പറ്റുന്ന മണിച്ചിത്രത്താഴ് പിന്നെ സി ഐ ഡി മൂസ മൈ ബോസ് എന്നീ സിനിമ ദീലീപിൻ്റെ സിനിമ അങ്ങനെയുള്ള പഴയ സിനിമകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്